നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലും നമുക്ക് ഇവിടെ കുറേ ഇൻസ്റ്റിറ്റ്യൂഷനും കാര്യങ്ങളുണ്ട് പിന്നെ കുറേ ജോലീൻ്റെ സൗകര്യങ്ങൾ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് മെയിനായിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ താമസിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഒരുപാട് അവൈലബിൾ ആണ് ഇപ്പം എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വെച്ചിട്ടുണ്ട് വേണമെങ്കിൽ പറയാം ഫിനിക്സ് അപ്പാർട്ട്മെന്റുകള് നിക്സ് വിന്റേജ് ഹോംസ്സ്റ്റേ ഇപ്പ ഇന്ത്യ മെറ്റേർണിയ വെർട്ടിക്കൽ ഹോം ഇങ്ങനെയുള്ള ഒരുപാട് ഇത് നമുക്കിണ്ട് പിന്നെന്ന് വച്ചിട്ടുണ്ടെങ്കില് കൂടുതലും കുട്ടികള് കൂടുതലും ഹോസ്റ്റലില് കാര്യങ്ങളൊക്കെ ആയിരിക്കും കൂടുതൽ നിക്കാറ് അപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കൂടുതലും ആ സ്ഥാപനത്തിനോട് അതായത് അവർ പഠിക്കുകയാണെങ്കിൽ ആ സ്ഥാപനത്തോട് അടുപ്പിച്ച് തന്നെ അവർക്ക് ഹോസ്റ്റലും കാര്യങ്ങളും സൗകര്യങ്ങളൊക്കെ ഉണ്ടാകും അതിനുള്ള പ്രതിഫലം എന്തെങ്കിലും കൊടുത്താൽ മതിയായിരിക്കും പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം ചില കുട്ടികളൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അഞ്ചു പേർ ചേർന്നിട്ട് ഒരു വീടൊക്കെ എടുത്ത് താമസിച്ചിട്ട് ഫുഡ് കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുക അങ്ങനെയൊക്കെയായിരുന്നു അപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവരും ഒരുപാടുണ്ട് അതായത് അങ്ങനെയുള്ള കുട്ടികൾ ഒരുപാടുണ്ട് എന്ന് വെച്ചാൽ നമുക്കിവിടെയെന്ന് വെച്ചാൽ ഒരിക്കലും നമുക്ക് ഇവിടെ ഭവന ഓപ്ഷനുകൾ ഇഷ്ടംപോലെ ലഭ്യമാണ് അതുകൊണ്ട് തന്നെ അത് നമുക്ക് ഇവിടെ ഒരു പഞ്ഞമോ ഇതുവരെ ഉണ്ടായിട്ടില്ല